ആ അതെ

ആ ആ അപ്പം ബ്ലഡ് പോയിരുന്നോ ആ ആ ആ ആ ആ ആ ആ അയ് കുറച്ച് കൂടെ ഉച്ചത്തിൽ പറയുവോ ആ ആ ഉം ആ ആ നിങ്ങൾ അപ്പം രാത്രിയിൽ പോയിട്ടില്ലായിരുന്നു ഡോക്ടറെ അടുത്ത് പോയിട്ടില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ പോയില്ലേ ആ ആ ആ ആ നിങ്ങൾ പെട്ടെന്നുതന്നെ ആ അതും അല്ല ആയിട്ട് ചെറിയൊരു ആക്സിഡന്റ് ആയാലും പെട്ടെന്നുതന്നെ ഹോസ്പിറ്റലിൽ എത്തണം ഇപ്പം തല അടിച്ച് പോയി എന്ന് ഒക്കെ പറഞ്ഞാൽ തലയിൽ എന്തെങ്കിലും ക്ഷതം ഏറ്റാൽ അത് തലച്ചോറിനെ ബാധിക്കില്ലേ അപ്പം പിന്നെ എന്താണ് പറ്റുന്നതെന്ന് അറിയില്ലല്ലൊ അപ്പം ബ്ലഡ് ഒന്നും പോയിട്ടില്ലെങ്കിൽ ആ വേദന ചിലപ്പോൾ ബ്ലഡ് അവിടെ പിന്നെ കട്ട പിടിച്ചിനോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ എനി ഇപ്പം സ്കാനിംഗ് എടുക്ക ആ സ്കാനിംഗ് എടുക്കാൻ എന്തായാലും വരണം നിങ്ങൾ ഇന്നലെ തന്നെ പോവേണ്ടത് ആയിരുന്നു പിന്നെ പെട്ടെന്നുതന്നെ നോക്കിയാ എന്താണ് പറ്റിയതെന്ന് അറിയാമല്ലോ അപ്പം നിങ്ങൾ എന്നാൽ ഹോസ്പിറ്റലിലേക്ക് വന്നോ ഇവിടെ സ്കാനിംഗിന് ഇപ്പോൾ ആ ഇവിടെ ബുക്ക് ചെയ്യണം ഒന്നാമത് ഇന്ന് ഇന്നലെ ഇന്ന് വരേണ്ടവർ ഇന്നലെ ബുക്ക് ചെയ്തു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഉച്ചവരെ എന്തായാലും ഫ്രീ ആയിരിക്കില്ല ഫുൾ ആണ് പിന്നെ ബുക്കിംഗ് ഫുൾ ആയിപ്പോയി അല്ല നാളത്തേക്ക് നിങ്ങൾ വെച്ച് ഇരിക്കേണ്ട ഇപ്പോൾ തലയിൽ അല്ലേ പ്രശ്നം അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ആറ് മണി ആ സമയത്ത് പിന്നെ ഇത് ഇപ്പം ആരും ഉണ്ടാവില്ല് കാണിക്കാൻ ആരും ഉണ്ടാവില്ല നിങ്ങൾ ആ സമയത്ത് ഒന്ന് വിളിച്ചിട്ട് ഇവിടെ പിന്ന സ്റ്റാഫ് ഉണ്ട് അവർ അവരോട് ഇങ്ങനെ സംസാരിച്ചാൽ മതി ഇങ്ങനെ ആറ് മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ കാര്യം ഇവിടെ എടുക്കാൻ പറ്റും ഞാൻ ഇവിടെ ഏൽപ്പിക്കാം അപ്പം നിങ്ങൾ ഒരു ആറ് മണിക്ക് വന്നിട്ട് സ്കാനിംഗ് എടുത്തിട്ട് പോയിക്കോ അപ്പം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നാളെ വന്ന് നാളെ നാളെ നിങ്ങൾ രാവില വന്നാൽ മതി അതും ബുക്ക് ചെയ്യണം കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ട് പോയാൽ മതി അതിന്റെ റിപ്പോർട്ട് വാങ്ങാൻ രാവിലെ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ രാവിലെ നോക്കാം സ്കാനിംഗ് റിപ്പോർട്ട് പിന്നെ രാവില അതും ആ രാവിലെ വന്നാൽ മതി പിന്നെ വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിച്ചേക്ക് ഇപ്പോൾ സ്കാനിംഗ് എടുക്കുക ആ ഓ എന്തായാലും ഒരു ഡോക്ടറെ കാണിച്ചേക്ക് പിന്നെ സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ ഇപ്പം വേദന ഉണ്ടെങ്കിലും വേദനേൻ്റ ഗുളിക ഒക്കെ വാങ്ങണമെങ്കിൽ പിന്നെ ഒരു ഡോക്ടറെ കാണിച്ചേക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അത് തലയിൽ തലയിലാണ് മുറിവ് എങ്കിൽ പെട്ടെന്നുതന്നെ എല്ലം നോക്കേണ്ടേ എന്നാൽ ഓക്കെ നിങ്ങൾ വൈകുന്നേരം ഒരു ആറ് മണി ആവുമ്പോൾ വന്നാൽ മതി ആ ആ ആ ആ എന്നാൽ ഓക്കെ ആ